ആറ് ആറ് രണ്ടായിരത്തി പത്ത് എട്ട് രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഒൻപത് ഒൻപത് രണ്ടായിരത്തി പന്ത്രണ്ട് പത്ത് പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് ഏഴ് എട്ട് രണ്ടായിരത്തിയഞ്ച്